ഇപ്പോൾ എനിക്ക് പ്രൊഡക്റ്റിനെ പറ്റി അതായത് ഈ മൊബൈലിനെ പറ്റി പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ എനിക്കിത് എന്താ പറയുക കുറഞ്ഞ് എന്താ ചെറിയ ടൈമിലിത് ചാർജെയ്ത് കിട്ടുന്നുണ്ട് കാരണം കുറച്ച് ടൈമ് കൊണ്ട് തന്നെ എൻ്റെ ഫോണില് നല്ലോണം ചാർജ് കയറുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയൊക്കെ എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേയ് ആയത് കൊണ്ട് തന്നെ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയ്ക്കൊന്നും പ്രശ്നം വരുന്നില്ല കാരണം ബ്രൈറ്റ്നസ്സും അങ്ങനെയുള്ളതൊന്നും കണ്ണിന് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നേ കു പറയുകയാണെങ്കിൽ പിന്നെ ഇതില് ഓരോ ആപ്പുകളും കാര്യങ്ങളൊക്കെ എന്താ പറയുക സപ്പോർട്ടീവാണ് കാരണം എനിക്ക് കറക്റ്റ് ആപ്പുകളും എല്ലാ ആപ്പും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് എല്ലാ ആപ്പുകളും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഓരോ ആപ്പുകളും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കറക്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതില് ഏത് സിമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഫൈ ജി സിമും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോണാണ് എൻ്റെത് പിന്നെ എന്താ പറയുക ഓരോ ഇതിനനുസരിച്ച് എനിക്കിത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഓരോ അപ്ഡേഷൻസും എല്ലാ അപ്ഡേറ്റും ഇതിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഇതിന് എ എന്താ പറയുക ഓവറ് ഹീറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ടെനിക്ക് ഇത് യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇത്തരത്തിലാണ് എൻ്റെ ഫോണിനെ കൊണ്ട് എനിക്ക് ഉപകാരങ്ങള് വന്നുകൊണ്ടിരിക്കുന്നത്